മനുഷ്യൻ്റെ വളർച്ചയിൽ എപ്പോഴും മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നുതന്നെയാണ് സാങ്കേതികവിദ്യ അതുപോലെ യൂടൂബർമാരായാലും കണ്ടെന്റ് ക്രീയേറ്റർമാരായാലും ഒരു സാങ്കേതികവിദ്യ അവരുടെയെല്ലാം വളർച്ചയിൽ വളരെ വളരെ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഉദാഹരണം പറയാണെങ്കിൽ എന്റൊരു അടുത്ത സുഹൃത്ത് യൂടൂബർ ക്രീയേറ്റർ ആണ് മൂപ്പർക്ക്ക്കിൻ്റെ ചാനലിൻ്റെ വളർച്ചയും ഒരു നല്ലൊരു ക്യാമറ പിന്നെ എഡിറ്റിങ്ങ് സോഫ്റ്റുവെയറുകൾ അതെല്ലാം വളരെ വളരെ നല്ല പങ്കാണ് വഹിച്ചിട്ടുള്ളത് മൂപ്പരുടെ ചാനലിൻ്റെ ഉയർച്ചയിൽ വളരെ നല്ല പങ്കുവഹിച്ചിട്ടുള്ള സാധനങ്ങളാണ് പോരാത്തതിന് കൂടുതൽ ഉവ്വ് ഉപകരണങ്ങൾ കൂടുതൽ സാങ്കേതികമായി നല്ല ഉന്നമനത്തിൽ നിൽക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ മൂപ്പർക്ക് നല്ല രീതിയിലുള്ള ഒരു കൺറ്റെന്റ് ക്രീയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് യാഥാർഥ്യം ഓരോ സാങ്കേതിക വിദ്യ വർദ്ധിക്കുമ്പോളും ഓരോ രീതിയിലുള്ള വർദ്ധനവ് വരുമ്പോളും മികച്ച ഫലമാണ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത് മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എളുപ്പമാക്കാൻ കഴിയുന്ന തരത്തിൽ പുതിയ പുതിയ ന്യൂതനകമായ ന്യൂതനമായ സാങ്കേതികവിദ്യകൾ വരുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവിതരീചി ജീവിതരീതി വളരെ മെച്ചപ്പെടുത്താൻ പറ്റും